നമ്മള് മലയാളത്തിൽ സംസാരിക്കുമെന്ന് പറഞ്ഞാൽ നമ്മള് കറക്റ്റ് മലയാളമല്ല നമ്മള് സംസാരിക്കണത് അച്ചടി ഭാഷയിലല്ല നമ്മള് സംസാരിക്കുന്നത് നമ്മള് സംസാരിക്കണ നമ്മള് നമ്മള് പണ്ട് നമ്മുടെ അച്ഛനും അമ്മയും മാരും സംസാരിച്ച ഭാഷയും ഭാഷ രീതിയിലുമാണ് നമ്മള് സംസാരിക്കണത് പക്ഷേ അത് എഴുതുമ്പോൾ നമുക്ക് നമ്മൾ സംസാരിക്കണ രീതിയിലെഴുതാൻ പറ്റില്ല അത് അപ്പഴും മലയാളത്തിലെന്താണോ നമ്മള് അക്ഷരമാലയിലെന്താണോ ഉള്ളത് അതേപോലെ നമ്മള് അങ്ങനെയാണ് എഴുതാൻ പറ്റൂ അല്ലാതെ സംസാരിക്കണ വാക്കൊരിക്കലും നമുക്ക് എഴുതാൻ മലയാളത്തിലെഴുതാൻ പറ്റില്ല അത് വലിയൊരു ബുദ്ധിമുട്ടാണ് കാരണം നമ്മള് സംസാരിക്കുമ്പോൾ വളരെ എളുപ്പത്തിൽ നമ്മള് നമ്മളെ ഭാഷാരീതിയില് നമ്മള് സംസാരിച്ചു പോകും പക്ഷേ എഴുതുമ്പോ അങ്ങനെ നമുക്ക് ചെയ്യാൻ പറ്റില്ല എഴുതുമ്പോൾ നമ്മള് എന്താണോ നമ്മള് പട് പട് അച്ചടി ഭാഷയിലെന്താണോ ഉള്ളത് അതേ രീതിയിലാണ് എഴുത്തുകള് ഉപയോഗിച്ചിട്ടാണ് നമ്മള് എഴുത് എഴുതുമ്പോൾ എഴുതാ രണ്ടും തമ്മിലൊരുപാട് വ്യത്യാസമുണ്ട് അതുകൊണ്ടു തന്നെ സംസാരിക്കുമ്പോഴും എഴുതുമ്പോഴും അതിൻറ്റേതായ ഒരു ബുദ്ധിമുട്ട് എന്തായാലും നമുക്ക് അനുഭവപ്പെടും